ഹലോ

പലഹാരം ബോണ്ട ഉണ്ട് സുഖിയൻ ഉണ്ട് ഉള്ളിവടയുണ്ട് പഴംബോളി ഉണ്ട് വട്ടയപ്പമുണ്ട് സമൂസയുണ്ട് ചുക്കപ്പം പത്തിരി ഏത് വേണെങ്കിലും ഉണ്ട് ഏതാന്ന് പറഞ്ഞാൽ മതി അത് ഇപ്പോൾ പഴം പൊരിക്ക് മാത്രം പതിനഞ്ച് ബാക്കി എല്ലാത്തിനും പതിനാല് രൂപയ്ക്കാണ് ആ മൊത്തം എത്ര എണ്ണമാണ് ഇരുനൂറോ ആ ഹമ് ഹമ്

ഹും ചുക്കപ്പവും ഉണ്ട് പത്തിരിയുണ്ട് പിന്നെ അല്ലെങ്കിൽ കേക്ക് ഐറ്റംസ് എന്തെങ്കിലും വേണോ വെട്ട് കേക്കുണ്ട് അല്ലാതെ പിന്നെ കുറ്റി കേക്ക് പിന്നെ കട്ട് ചെയ്ത് എടുക്കുന്ന കേക്കുകളുണ്ട് പിന്നെ ക്രീം കേക്കിൻ്റെ പീസുകൾ ആയിട്ട് വേണമെങ്കിൽ അതും ഉണ്ട് ഹമ് ഹമ് ആ അത് കുഴപ്പം ഇല്ല എന്നത്തേക്കാണ് വേണ്ടത് ആ ഹമ് ഹമ് ഹമ് ആ ഇരുന്നൂറെണ്ണം മിക്സ് ചെയ്ത് ആ അതെ നിങ്ങൾക്ക് ആരെയെങ്കിലും വിട്ട് എടുപ്പിക്കാനുള്ള സൗകര്യമുണ്ടോ എത്ര മണിക്കാണ് വൈകുന്നേരം അഞ്ചുമണിക്കോ നാലുമണിക്ക് ആ ഒരു കടികളൊക്കെ നേരത്തെ തന്നെ റെഡിയാവുന്നതാണ് മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴേക്കും പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാം ചൂടാറില്ല നിന്നോളും ആ മധുരമില്ലാത്ത ചുക്കപ്പം ആ ആ ഉം ചായ വേണോ ഇരുന്ന് എത്ര ചായ വേണം ഇരുന്നൂറ് ചായയോ ചായ വേണോ അതൊ ബ്രൂ കോഫി ആയാലോ ബ്രൂ കോഫി ആണെങ്കിൽ എല്ലാവർക്കും കുടിക്കാൻ പറ്റും ചായ ആകുമ്പോൾ പല കടുപ്പത്തിലും പല രീതിയിൽ ആളുകൾക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ബ്രൂ കോഫി ആണെങ്കിൽ എല്ലാം ഒരെപോലെ ഇരിക്കുമല്ലൊ ഇതിൻ്റെ കൂടെ ഡിസ്പോസിബിൾ ഗ്ലാസൊ പ്ലേറ്റൊ അങ്ങനെ എന്തെങ്കിലും വേണോ ഹമ് ഹമ് ചെറിയ പ്ലേറ്റ് ആ ഹമ് ഹമ് ഹമ് ഹമ് ഹമ് ഹമ് ആ ആ ഹമ് ഹമ് ചുക്കപ്പം പോലെയുള്ള ഐറ്റങ്ങൾ കൂടുതൽ വച്ചേക്കാം ചുക്കപ്പം മധുരം എല്ലാത്തിനും ഇപ്പോൾ അതിനൊക്കെ മധുരം പിന്നെ ഓവറായിട്ടുള്ള മധുരമില്ലല്ലോ ബോണ്ടയ്ക്ക് ആ ചേർക്കുന്നുണ്ട് എന്നാലും വലിയ മധുരമില്ല അല്ലാത്ത ബേക്കറി ഐറ്റംസ് പോലത്തെ വലിയ മധുരം ഇതിനില്ലല്ലൊ ആ അത് കുഴപ്പമില്ല ഇതിപ്പോൾ എവിടെയാണ് എത്തിക്കേണ്ടത് ഹമ് ഹമ് ആ ആ ആ അതു കുഴപ്പമില്ല ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ ഒന്ന് ഇട്ടാൽ മതി എന്നാൽ ഞാൻ ആരുടെയേലും കയ്യിൽ കൊടുത്തുവിടാം ഹമ് ഹമ് ആ എന്നാൽ ആയിക്കൊട്ടെ ഒരുപത്തഞ്ചാം തീയതി അല്ലേ അപ്പോൾ തലേദിവസം ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ഓർമിപ്പിക്കണം ഓക്കെ ഓക്കെ ശരി